രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഒരു ലക്ഷത്തി അൻമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് നാല് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് മൂന്ന് ലക്ഷത്തി മുപ്പത്തിമുവ്വായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ആറ് ലക്ഷത്തി അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ്